മലയാളത്തിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളും പ്രയോഗങ്ങളുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് വാക്കുകളുണ്ട് അതായത് നമ്മൾ കൂടുതലും ഒരു ദിവസം ഉപയോഗിക്കുന്ന വാക്കുകളെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഞാൻ അങ്ങനെ നമ്മൾ കുറേപ്പറയും പിന്നെ എൻ്റെയെന്ന് പറയും പിന്നെ വീട്ടിലാരെങ്കിലും ഇപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഉണ്ടാകും അമ്മേനെയായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ വിളിക്കുക അങ്ങനെയുള്ള ഒരുപാട് വാക്കുകളുണ്ടാകും നമുക്ക് പറയാനാണെങ്കിൽ പിന്നെയെന്ന് വെച്ച് മലയാള സ ഭാഷ സംസാരിക്കുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചെറുപ്പത്തിലേ കേട്ട് വളർന്ന ഭാഷ അതിപ്പോൾ നാലാളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ അത് പറയാൻ ഒരിക്കലും നാണംകെടേണ്ട ആവശ്യമില്ല കാരണമെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതൃഭാഷയാണ് പിന്നെ നമ്മളിപ്പം നമ്മളിൻഗ്ലീഷും മറ്റു ഭാഷകളൊക്കെ പഠിക്കും നമ്മൾ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെയും ആയിരിക്കും പിന്നെ നമ്മൾ നാലാൾ നിൽക്കുമ്പോൾ നമ്മളിപ്പം ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അവർക്ക് മലയാളം അറിയുമെങ്കിൽ മലയാളത്തിൽത്തന്നെ സംസാരിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ സംസാരിക്കാൻ നമ്മൾ അഭിമാനം കൊള്ളുകയാണ് വേണ്ടത് കാരണമെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല ചിലർക്കൊക്കെ ഒരു ചിന്ത ഉണ്ട് മലയാളം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മലയാളം ഞാൻ മലയാളം മാത്രം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടാണല്ലോ അങ്ങനത്തെ ചിന്തകളൊക്കെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷെ നമ്മളങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളമെന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയാണ് നമ്മുടെ അമ്മക്ക് തുല്യം തന്നെയാണ് മലയാള ഭാഷ